ഹലോ ഹലോ ഇതാരായിരുന്നു വിളിക്കുന്നത് ആ അതെ എന്തായിരുന്നു ഓക്കെ എന്തായിരുന്നു ഓക്കെ ഓക്കെ ഓക്കെ ആ ഇപ്പോള് നമുക്കു നിലവില് പുതിയതായിട്ട് വന്നേക്കുന്നത് അതായത് സച്ചിന് ചെയിന്റെ അണ്കട്ട് വരുന്നുണ്ട് അതുപോലെതന്നെ ബീഡ്സുള്ളത് അതില് പ്ലേയ്നായിട്ട് വരുന്ന ഉണ്ട് പിന്നെ അതുപോലെ മാങ്ങാ ഡിസൈന് വരുന്നത് അങ്ങനത്തെ ടൈപ്പൊണ്ട് പിന്നെ നമുക്കിപ്പോള് മാറിയെടുക്കാനുദ്ദേശിക്കുന്ന ആ ആ വിലയ്ക്കുതന്നെ വീണ്ടും എടുക്കാനായിട്ടാണോ അതോ അഡീഷണല് കുറച്ചും കൂടി ഇന്വെസ്റ്റയ്തെടുക്കാനായിട്ടാണോ ഓക്കെ ഓക്കെ രണ്ടു പവന്റെ നമുക്കിവിടെ അവൈലബിളാണ് അപ്പോള് അതിന്റെ പണിക്കൂലി അങ്ങനെയെക്കെ കൂടി ഒരു ചെറിയ ഒരു നമുക്ക് വരുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറാണ് പവനു പണിക്കൂലി വരുന്നത് ഉം എന്തോ ആ ഓക്കെ നമ്മള്ക്കൊരു രണ്ടിഞ്ച് ഗ്യാപ്പില് ബീഡ്സ് വരുന്ന റൗണ്ട് ബീഡ്സ് വരുന്നതിന് അത് സില്വര് ബീഡ്സ് ഗോള്ഡന് ബീഡ്സും മിക്സായിട്ടുള്ളതാണോ അതോ ഗോള്ഡന് ബീഡ്സ് മാത്രമായിട്ടുള്ളതാണോ ഓക്കെ ഓക്കെ ഓക്കെ ആ അങ്ങനെത്തെ വരുന്നതിനൊരു ഇപ്പോള് നിലവിലുള്ളതിന് ഒരു ത്രീ തൗസന്ഡ് മൂവായിരം രൂപായൊക്കെ പണിക്കൂലി വരുന്നുണ്ട് അപ്പോള് അതിന് നമ്മുടെ ഡിസൈനിന് അനുസരിച്ച് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമായിരിക്കും കേട്ടോ ഓക്കെ ഓക്കെ നിലവിലിപ്പോള് അത് നെയന് വണ് സിക്സാണെന്നുണ്ടെങ്കില് അതേ വില തന്നെ കിട്ടും അല്ലാത്ത ഇതാ ഇല്ലില്ലാ ഒരുപാട് ഒരുപാട് വ്യത്യാസം വരത്തില്ല പണിക്കൂലിയിലുള്ള ചെറിയ വ്യത്യാസങ്ങള് മാത്രമേ ഉള്ളൂ ഓക്കെ ഇന്നു വന്നെടുക്കാനായിട്ടായിരുന്നോ ഓക്കെ ഓക്കെ ആ പോരേ കെട്ടോ തുറക്കും തുറക്കും ബുധനാഴ്ചയൊക്കെ നമ്മള്ക്കിവിടെ ഓപ്പണാണ് കുഴപ്പമില്ല ആ ഒന്പതര ആവുമ്പോള് നമ്മള്ക്ക് കട തുറക്കും ആറു മണി വരെ വൈകിട്ടുണ്ടാവും എന്തോ ഇപ്പോള് നമ്മള്ക്ക് അക്ഷയതൃതിയ വരുന്നുണ്ട് ഉടനെ തന്നെ അക്ഷയതൃതീയയ്ക്കു നല്ല വ്യത്യാസം വരും ഗോള്ഡിന് മൊത്തത്തില് പ്രൈസിനു വ്യത്യാസം വരുന്നുണ്ട് പണിക്കൂലിയില് വിത്യാസമുണ്ട് നല്ല രീതിയില് വ്യത്യാസം വരും നല്ലൊരു ഡിസ്ക്കൗണ്ട് ഒരു ഒരു സിക്സ്റ്റീന് പേര്സെന്റെജ് വരെ നമ്മള് റെഗുലറായിട്ട് ഡിസ്ക്കൗണ്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ലോയല് കസ്റ്റമേഴ്സിന് അല്ലാത്തെ നമ്മളിപ്പോള് അക്ഷയതൃതീയ പ്രമാണിച്ച് ഒരു തേര്ട്ടി പേര്സെന്റെജ് വരെ ഡിസ്ക്കൗണ്ടുണ്ടായിരിക്കും അത് ഓക്കെ നൈന് വണ് സിക്സുണ്ട് അല്ലാത്തത് നമുക്ക് ഉണ്ട് നൈന് വണ് സിക്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കില് നമ്മള്ക്കാ ഒരു റേറ്റിനു തന്നെ തിരിച്ചുവയ്ക്കുമ്പോഴും അതേ റേറ്റ് തന്നെ മെയിന്റെയ്ന് ചെയ്യാന് പറ്റും ഒരു പതിനായിരം രൂപ വരെ മാക്സിമം പണിക്കൂലിയുടെ വ്യത്യാസം വരുന്നത് നാല്പതിനായിരം രൂപയും കൂടെ എക്സ്ട്രാ ഇട്ട് വരുമായിരിക്കും നമ്മള്ക്കത് വന്നു കണ്ടാലാണറിയാന് പറ്റുകയുള്ളൂ കറക്റ്റായിട്ട് ഓക്കെ ഓക്കെ ഉം ആ ആ